മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ കാലക്രമേണ ഒരുപാട് മാറ്റങ്ങളാണ് നാം ഇന്ന് കണ്ടുവരുന്നത് ഇന്നത്തെ കാലത്ത് മലയാള ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാതൃഭാഷയുടെ ഉപയോഗം കുറഞ്ഞു വരികയാണ് സ്കൂളുകളിൽ ലൈബ്രറിയിൽ പോയി കുട്ടികൾ നോവലുകളൊന്നും വായിക്കാറില്ല പുസ്തകങ്ങൾ എടുക്കാറില്ല വാർത്തകൾ കേൾക്കാറില്ല ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും മറ്റു ഭാഷകൾ കൈവരിച്ചിരിക്കുകയാണ് ഇന്നത്തെ പല വിദ്യാഭ്യാസ മേഖലകളിലും ഇംഗ്ലീഷ് ഭാഷയാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് കുട്ടികൾക്ക് മലയാള ഭാഷ ഉപയോഗിക്കേണ്ട രീതി പോലും അറിയാത്ത ഒരു സമൂഹത്തെയാണ് നാം ഇന്ന് കണ്ടുവരുന്നത് എന്തുകൊണ്ടാണിങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ കണ്ട് ആ ഭാഷയോട് സ്വാധീനം പുലർത്തി വരുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇന്ന് കണ്ടുവരുന്നത് ഇന്നുള്ള പല ജോലി സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷ് ഭാഷയ്ക്കാണ് പ്രാധാന്യം നൽകി വരുന്നത് ഒരുപാട് ഇൻ്റർവ്യൂകളും ഒക്കെ നടത്തുമ്പോൾ അവർ ഇംഗ്ലീഷിലാണ് പലതും പറയേണ്ടി ഇരിക്കുന്നത് മലയാള ഭാഷയുടെ മുൻതൂക്കം അവിടെ കുറഞ്ഞു വരികയാണ് ഇതൊക്കെയാണ് അന്യ സ് ഭാഷകളുടെ സ്വാധീനം മൂലം ഉണ്ടായ മാറ്റങ്ങൾ